ആ ട്രാവലേജൻസി അല്ലേ ആ നിങ്ങളെ നിങ്ങളെ ഞാൻ വിളിച്ചത് എന്താന്ന് വച്ചാല് നിങ്ങള് ബുക്ക് ചെയ്ത കാറിതുവരെ ഞങ്ങളെ പിക്ക് ചെയ്യാൻവേണ്ടി എത്തീട്ടില്ല ഇത്രയും നേരായിട്ടും എത്തീട്ടില്ല ഞങ്ങള് വിളിച്ചിട്ട് ആ സ്ഥലത്ത് എത്തുന്നില്ല കുറേ നേരായി വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങളുടെ ക്യാബ് വരാത്തത് കൊണ്ട്അന്നേ ഇനി ഈ ട്രിപ്പ് ക്യാൻസലു ചെയ്യാൻ വേണ്ടി വിളിച്ചതാരുന്നു ആ ആ ഓക്കേ ഇനി ഈ ട്രിപ്പ് ക്യാൻസലു ചെയ്തേക്കു ഇനി ഇപ്പൊൾ ഡ്രൈവറു വരാത്തത് കൊണ്ടന്നെ സമയം കുറേയായില്ലെ അതുകൊണ്ട് തന്നെ ഇനി ഈ ട്രിപ്പ് ക്യാൻസലു ചെയ്തേക്കു